എൻ്റെ ഒഴിവു സമയമൊക്കെ ഞാന് എങ്ങനെയാ ചിലവഴിക്കുന്നത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണ് ഞാന് സൂപ്പര് മാര്ക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മോര്ണിംഗ് അതായത് ഒരു ടെന് ടു ഈവെനിംഗ് സിക്സ് ഒ ക്ലോക്ക് വരെയാണ് എൻ്റെ ജോലി ടൈം അപ്പോൾ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ രണ്ട് മക്കളുണ്ട് ചെറിയ മക്കളാണ് ഒരാൾ പിന്നെ എല് കെ ജിയില് ഒരാള് രണ്ടാം ക്ലാസ്സിലും അപ്പോൾ രണ്ടു പേരും ഒരേ സ്കൂളില് തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ എനിക്ക് രാവിലെ അവര്ക്ക് രണ്ടു പേര്ക്കും പത്തുമണിക്ക് സ്നാക്ക്സ് കൊണ്ട് പോകണം ഉച്ചക്കുള്ള ഫുഡ് കൊണ്ട് പോകണം അങ്ങനൊക്കെയാണത് അപ്പോൾ രാവിലെ എണീച്ചപാടെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കും പിന്നെ വീട്ടിൽ ഫുഡ് കാര്യങ്ങള് വെക്കണം രാവിലെ അവര്ക്കെന്തെങ്കിലും ഭക്ഷണം കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊടുക്കണം പിന്നെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കൽ അതായത് അവര്ക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ സ്നാക്ക്സ് അതേപോലെ അവര്ക്ക് ഇതൊക്കെ വാരി കൊടുക്കണ്ടിവരും അതൊക്കെ ചെയ്തു കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് എല്ലാം എല്ലാം കഴിഞ്ഞതിനുശേഷം ആണ് നമുക്ക് അതായത് എല്ലാം ചെയ്യേണ്ടത് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഞാനൊരു പത്തുമണി ആവുമ്പോൾ പോവും പിന്നെ എനിക്ക് വൈകുന്നേരം വരെ ജോലിയാണ് അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേക്കും മക്കള് വീട്ടിലുണ്ടാവും പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കില് വൈകുന്നേരം വന്നിട്ട് വൈകുന്നേരം എന്തെങ്കിലും പണിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങും പിന്നെ ഈ ഞായറാഴ്ച അതായത് സണ്ഡേ മാത്രാണ് ലീവുണ്ടാവുക ആ ടൈമില് നമ്മളെവിടെയെങ്കിലും പുറത്തു പോവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും